ഒരു ചിത്രകലയിലേക്ക് കയറുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവർ വരയ്ക്കുന്ന ഫോട്ടോ അതായത് ഇപ്പോൾ ഒരു ആൾടെ ഫോട്ടോ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഫോട്ടോ അല്ല ആളുടെ ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ആ കവിൾ കണ്ണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അതായത് അവരുടെ മുഖം മുഖം തന്നെ മാറിപ്പോകുന്നൊരു അവസ്ഥയായിട്ടാണ് വരുക അപ്പം അത് കറക്റ്റ് വരച്ചില്ലെങ്കിൽ ഇപ്പം കാണുന്ന ഒരാൾക്കും വലിയ തൃപ്തികരം ഉണ്ടാവില്ല നമുക്കും ഒരു തൃപ്തികരം ഉണ്ടാവില്ല അപ്പം നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ വരയ്ക്കാനുള്ള ഒരു ഇത് ഇണ്ട ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതായത് ഡെയിലി ഒരു രണ്ടുമൂന്നെണ്ണം ഒരു രണ്ട് മൂന്ന് പിക്ചർ എങ്കിലും നമ്മൾ നോക്കി വരച്ചിരിക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും നല്ല രീതിയിലുള്ള പ്രാക്ടീസ് യുണ്ടായാൽ മാത്രമേ നമുക്ക് വരയ്ക്കാനുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഈ ക്ലാസുകളിലൊക്കെ പോയി പഠിക്കുന്ന രീതിയിലാണ് കുറച്ചുകൂടെ മെച്ച് മെച്ചം ആയിട്ട് തോന്നുന്നത് കാരണം ഇപ്പോൾ ഒരു ഫെയ്സ് വരയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്കുള്ള അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അളവിനനുസരിച്ച് വേണം കണ്ണ് മൂക്ക് വായ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല